ഈ പ്രദേശത്ത് കൂടുതലായി ആഘോഷിക്കുന്നത് ക്രിസ്മസ് ആണ് ക്രിസ്മസ് വളരെ ഭംഗിയായിട്ടുതന്നെ ഈ പ്രദേശത്ത് ആഘോഷിക്കുന്നുണ്ട് ക്രിസ്ത്മസിനോട് അനുബന്ധിച്ച് ദീപാലങ്കാരങ്ങളും മറ്റ് കരോൾ പരിപാടികളും അതുപോലെത്തന്നെ പുൽക്കൂട് ഒരുക്കൽ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട് പിന്നെ കരോൾ മത്സരങ്ങൾ നടത്താറുണ്ട് പുൽക്കൂട് മൽസരങ്ങൾ നടത്താറുണ്ട് അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ ഈ പ്രദേശത്ത് പൊതുവെ യുവജനങ്ങൾ ചെയ്യാറുണ്ട് അതുപോലെ ക്രിസ്മസിനോട് അനുബന്ധിച്ച് കേക്ക് വിതരണം കേക്ക് ഉണ്ടാക്കൽ മത്സരം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യാറുണ്ട് ഈ പ്രദേശത്ത് ആളുകൾക്ക് ക്രിസ്മസിനോട് അനുബന്ധിച്ച് ഒരുപാട് മത്സരങ്ങൾ അവയൊക്കെ നടത്താറുണ്ട്

ആണ് ദീപാവലി ദീപാവലിക്കും ഇതുപോലെത്തന്നെയാണ് ദീപങ്ങൾ തെളിയിക്കാറും പടക്കം പൊട്ടിച്ചും ഒക്കെ ദീപാവലിയും

ഇവിടെ ആഘോഷിക്കാറുണ്ട്

ഈദ് ഈദിനോട് അനുബന്ധിച്ചും ഇവിടെ ആഘോഷങ്ങൾ സംഘടിപ്പിക്കാറുണ്ട് അങ്ങനെ ഈ പ്രദേശത്ത് പൊതുവേ ഉത്സവങ്ങൾ ഒരുവിധം ഭംഗിയായിട്ട് തന്നെയാണ് ആഘോഷങ്ങൾ കൊണ്ടാടുന്നത് ക്രിസ്മസിൻ്റെ തണുപ്പും ആ ഒരു അന്തരീക്ഷവും ഒക്കെ വളരെ നല്ലതാണ്

ക്രിസ്തുമസിന് രാത്രി പള്ളിയിൽ അതിനോട് അനുബന്ധിച്ച് പ്രത്യേക പ്രാർത്ഥനകൾ മറ്റ് ചടങ്ങുകൾ ഒക്കെ നടത്തിപ്പോരുന്നു അതിനും ഈ പ്രദേശത്തുള്ളവർ ധാരാളമായിട്ട് അതിനോട് അതിൽ പങ്കെടുക്കുകയും അതിനോട് സഹകരിക്കുകയും അതിനു വേണ്ട ക്രമീകരണങ്ങൾ എല്ലാം ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇങ്ങനെ ആഘോഷ പരിപാടികൾ പൊതുവെ ഈ നാട്ടിലുള്ളവർക്ക് ആഘോഷങ്ങളൊക്കെ പൊതുവെ ഇഷ്ടമാണ് അതിനോട് എല്ലാവരും നല്ല രീതിയിൽ സഹകരിക്കുകയും ചെയ്യാറുണ്ട്